ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളികളുണ്ടാകും അപ്പം മലയാളികള് മലയാളികൾ കേരള കേരളത്തിലെ മാതൃഭാഷയാണ് മലയാളം അപ്പം കേരളത്തിലെ മലയാളികളിൽ തന്നെ എല്ലാരും വ്യത്യസ്ഥ ശൈലികളില് ഭാഷ ഉപയോഗിക്കുന്നവരാണ് കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിലുള്ള ആൾക്കാര് വ്യത്യസ്ഥമായ രീതിയിലാണ് മലയാളം ഉപയോഗിക്കുന്നത് അവര് അവരെവിടെ പോയാലും അവര് അവരുടെ ശൈലിയിലാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് തന്നെ ഓരോരുത്തരുടെ ശൈ ശൈലി ഭാഷാ ശൈലി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവര് ഏത് ജില്ലയിൽ നിന്നുള്ളവരാണെന്ന് കാസർഗോഡ് എന്ന് പറയുമ്പം അവരുടെ സംസാരശൈലി അപ്പാ ഇപ്പാ അതേ മാതിരി കണ്ണൂരാവുമ്പോഴും ആടാ ഈടാ അങ്ങനൊക്കെയാണ് നേരെ മറിച്ച് തൃശൂര് വരുമ്പം അവരൊര് വളഞ്ഞ രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാ എല്ലാ ജില്ലകളിലുള്ളവരും വ്യത്യസ്ഥ ഭാഷയിലാണ് സംസാരിക്കുന്നത് വ്യത്യസ്ഥ ശൈലികളില് അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും നമക്കൊരാളെ പരിചയപ്പെട്ട് കഴിയുമ്പം തന്നെ അവരുടെ സംസാരത്തിലുള്ള വ്യത്യസ്ഥമായ രീതികള് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അവര് വേറെ നാട്ടുകാരാണ് അവര് ഏത് ജില്ലയിലുള്ളവരാന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാകും